അതെൻ്റെ ലൊക്കേഷൻ ഇത് ചങ്ങനാശ്ശേരിക്കും കോട്ടയത്തിനുവെടക്കുള്ളൊരു സ്ഥലമാണ് തുരിത്തീന്ന് പറയും തുരിത്തി അത് പുന്നമോഡ് ജങ്ഷനീന്ന് ചങ്ങനാശ്ശേരീന്ന് വരുമ്പം ഇടത്തോട്ട് ഒരു പോക്കറ്റ് റോഡ് പോകുന്നുണ്ട് അവിടെന്നൊരു ഒന്നര കിലൊമീറ്ററ് വരും യുദാപുരം അതായത് മൊളയ്ക്കാന്തുരിത്തി ഭാഗത്തോട്ടാണ് ആ ആ റോട്ടീന്ന് കാവാലം റൂട്ടാണ് ഒരു ഒന്നര കിലോമീറ്ററ് വരുമ്പോഴേക്കും അതിൻറ്റൊരു വലത്ത് സൈഡിലോട്ടൊരു പോക്കറ്റ് റോഡൊണ്ട് അവിടുന്ന് വരുമ്പോഴെക്കും ഒരു സെഞ്ചൂഡ് ഹോസ്പിറ്റൽന്ന് കാണാം അതിൻ്റടുത്ത് തന്നെ അസ്സീസി കോൺവെൻറ്റ് അതുപോലെ തന്നെ സെൻറ്റ് ജൂഡ് ചർച്ചുവൊണ്ട് അതിൽ ഇടത് വശത്താണ് അസ്സീസി കോൺവെൻറ്റ് അവിടെ നെയിം ബോർഡുവൊണ്ട് അതിൻ്റെ ആ ആദ്യത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ നമ്പറും ഞാൻ ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി എൻ്റെ നമ്പററിയാമല്ലോ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് അഞ്ച് ഏഴ് മുന്ന് ഏഴ് നാല് നാല് ഇട്ടൊന്ന് വിളിച്ചാൽ മതി